കണ്ണൂർ ജില്ലയിലെ പ്രധാനമായിട്ടുള്ള കൃഷി എന്ന് പറയുന്നത് കശുവണ്ടിയാണ് കശുവണ്ടിയാണ് നമ്മൾ കൂടുതലായിട്ടും ഉത്പാദിപ്പിക്കുന്നത് കാരണമെന്ന് വെച്ചാൽ ഒരു കശുവണ്ടി തോട്ടങ്ങളായിട്ട് തന്നെ എടുത്തിട്ട് നമ്മളത് പാട്ടത്തിനെടുത്തിട്ട് ആ ചെയ്യുവാണ് ചെയ്യുന്നത് അതുകൊണ്ടു തന്നെ നമ്മള് സ് നാട്ടിലുള്ള സ്ത്രീകൾക്ക് ഒരു പാർട്ട് ടൈം ജോബ് ആയിട്ട് കൂടി അത് ഉപ് ഉപയോഗപ്പെടുത്തുന്നതാണ് കാരണം രാവിലെ ഒരു രാവിലെ മുതൽ ഒരു പത്തുമണിവരെ അവർക്ക് കശുവണ്ടി പറക്കണ്ട ഒരു രീതിയിലേക്കാവുമ്പോൾ അവർക്ക് അത് ഒരു വരുമാനമാർഗമായിട്ടാണ് ഉള്ളത് പിന്നെ ഉള്ളതെന്ന് വെച്ചാല് കൈത്തറി വ്യവസായം കൈത്തറി വ്യവസായം കണ്ണൂര് ഒരുപാടുണ്ട് കാരണമെന്ന് വെച്ചാല് കണ്ണൂരാണ് മെയിനായിട്ട് കൈത്തറി വ്യവസായത്തിൻ്റെ ഇതിലേക്കായിട്ട് പോകുന്നത് അതിൽ തന്നെ ഒരുപാട് മേഖലകളിലായിട്ട് എല്ലാവർക്കും ജോലിയും ജോലി സാധ്യത കൂടുതലുള്ള ഒരു മേഖല തന്നെയാണ് കൈത്തറി പിന്നെ കണ്ണൂർ ജില്ലയിൽ തന്നെ ഒരുപാട് കടൽ തീരമുള്ള പ്രദേശമായതുകൊണ്ട് തന്നെ ഒരുപാട് മത്സ്യബന്ധനം കണ്ണൂർ ജില്ലയിൽ ഉണ്ട് പിന്നെയുള്ളത് തന്നെ കോർപ്പറേറ്റിവ് സൊസൈറ്റികളിൽ കൂടുതലുള്ളത് കൊണ്ട് തന്നെ പുതിയ കർഷക വായ്പ അല്ലേ വാഹന വായ്പ അതുപോലെ തന്നെയുള്ള ഒരുപാട് വായ്പകൾ കൊടുത്തിട്ട് കർഷകരെ സഹായിക്കുകയും ചെയ്യുന്ന ഒരുപാട് കോർപ്പറേറ്റിവ് സൊസൈറ്റികളുണ്ട് പിന്നെ അരള ഫാമിംഗ് പോലത്തെ കോപ്പറേഷൻ ലിമിറ്റഡ് കമ്പനി ഉള്ളത് എന്ന് വെച്ചാല് ഇരിട്ടി കണ്ണൂര് പോലത്തെ സ്ഥലങ്ങളിൽ തന്നെയാണ് ഉള്ളത് കണ്ണൂർ ജില്ലയിൽ തന്നെ ഉള്ളതാണ് അതില് കൂടുതലായിട്ട് ഉള്ളത് എന്ന് വെച്ചാല് തേനീച്ച തേൻ ഉത്പാദന തേൻ ഉൽപാദന തേനീച്ച ഒരു ഫാമുപോലെ ആക്കിയിട്ടുള്ള ഒരു നാടൻ തേൻ ഉൽപാദന രീതിയാണ് അരള ഫാമില് ചെയ്യുന്നത്